മലയാള ഭാഷ നമ്മുടെ സംസ്കാരത്തിന് നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരെ സൃഷ്ടിക്കുന്നതിനും നമുക്ക് മലയാളം നമ്മൾ നമ്മുടെ മാതൃഭാഷയാണ് നമുക്ക് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രാചീനമായൊരു ഭാഷയാണ് നമ്മുടെ മലയാള ഭാഷ മലയാള ഭാഷ ലോകത്ത് എവിടെ ചെന്നാലും മലയാളികളുണ്ട് അതുകൊണ്ട് മലയാളഭാഷ പഠിച്ചതുകൊണ്ട് നമുക്ക് ലോകത്തെവിടെ ചെന്നാലും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല ഗൾഫ് നാടുകളിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും ആഫ്രിക്കൻ കൺട്രികളിലാണെങ്കിലും എവിടെ ചെന്നാലും നമുക്ക് ഭാഷ അറിയാവുന്ന ആരെങ്കിലുമുള്ളതുകൊണ്ട് നമുക്ക് മലയാള ഭാഷ അറിയാവുന്നതുകൊണ്ട് ഏറ്റവും ലോകത്തിൽ ബുദ്ധിമുട്ട് സംസാരിക്കാൻ മലയാള ഭാഷയാണ് എത്ര മലയാളം പഠിച്ച പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ പഠിച്ചാലും ചില വാക്കുകൾ നമ്മളുച്ഛരിക്കുന്നതുപോലെ അവർക്ക് ഉച്ഛരിക്കാൻ പറ്റത്തില്ല നമ്മുടെ വ്യക്തിത്വത്തെ മലയാളികളെന്ന് പറയുമ്പോൾ മല്ലൂസെന്ന് പറയുമ്പോൾ ലോകത്തെവിടെയും ചെന്നാലും കാണുകയും നമ്മുടെ പ്രത്യേകം ഐഡൻടിഫൈ ചെയ്യേണ്ടേ കാര്യമില്ല നമ്മൾ എവിടെച്ചെന്നാലും ആൾക്കാർക്ക് തിരിച്ചറിയാം മലയാളികളാണ് സ്നേഹസമ്പന്നരായിട്ടുള്ള വ്യക്തിത്വത്തിനുടമകളാണ് മറ്റുള്ളവരെ സഹായിക്കാനും സഹാനുഭൂതിയോടുകൂടി

ഒരു നല്ല പോലെ നല്ല രീതിയിൽ പെരുമാറാനുമൊക്കെ നമുക്ക് ഭാഷ മലയാള ഭാഷകൊണ്ട് നമുക്ക് മലയാളിയായി ജനിച്ചതുകൊണ്ട് അഭിമാനം തോന്നുന്ന ഓരോ മുഹൂർത്തങ്ങളുണ്ട് നമ്മൾ ഒരുപാടാൾക്കാർ മലയാളികൾ ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രശസ്തരാകുകയും നമ്മുടെ നാട്ടിൽനിന്ന് പോയി മലയാളികൾ പ്രസിദ്ധരെന്ന് മലയാളിയാണെന്ന് പറയുമ്പോൾ നമുക്കുതന്നെ അഭിമാനം തോന്നും കായിക താരങ്ങളാണെങ്കിലും വ്യവസായികളാണെങ്കിലും അങ്ങനെ രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിലും അങ്ങനെ മലയാളികളായിരുന്നു മലയാള ഭാഷ പഠിച്ചുകൊണ്ടും സംസ്കാരം പഠിച്ചുകൊണ്ടും നമുക്കൊരുപാട് നമുക്കൊരുപാട് ആ അഭിമാനവും ആ സന്തോഷവും തോന്നുന്ന മുഹൂർത്തങ്ങളാണ് പിന്നെ ഭാഷ നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുകയും നമ്മൾ പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം പഠിക്കുകയും നമ്മൾ സഹാനുഭൂതിയും മറ്റുള്ള സഹായിക്കാനും സഹിഷ്ണുതയും എല്ലാം നമുക്ക് പഠിക്കാം നമ്മൾ ഭാഷകൾ ഭാഷ പഠിച്ചതുകൊണ്ട് നമ്മുടെ സംസ്കാരം പിന്നെ മലയാളം സംസ്കാരമുള്ളതുകൊണ്ടും ആ ഭാഷ പഠിച്ചതുകൊണ്ടും നമുക്ക് പറ്റുന്നുണ്ട് ഒരുപാട് അറിവുകൾ നേടാനും ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിക്കാനും ലോകത്തുള്ള പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അഗാധമായ അറിവും പാണ്ഡിത്യവും നേടാനുമെല്ലാം ഭാഷ മലയാള ഭാഷയിൽ എല്ലാ ലോകത്തെ പുസ്തകങ്ങളും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട് ബൈബിളാണെങ്കിലും ഖുറാനാണെങ്കിലും എല്ലാം മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട് നമുക്ക് വായിക്കാനും അതിനെ അത് നമുക്ക് മനസ്സിലാകുന്ന രീതിയിലത് എല്ലാം എഴുതിയിട്ടുള്ളതുകൊണ്ട് നമുക്കത് വായിക്കാനും ഭാഷ പഠിച്ചുകൊണ്ടും അതിൻ്റെ വ്യാകരണങ്ങളും വാക്കുകളെല്ലാം പഠിച്ചുകൊണ്ടും നമുക്കത് അഗാധമായി മനസ്സിലാക്കാനും പറ്റുകയും നമുക്കതനുസരിച്ച് പ്രവർത്തിക്കാനും ജീവിക്കാനും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും മറ്റുള്ളവർക്ക് അറിവ് പകർന്നുകൊടുക്കാനും നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ വായിച്ചും പഠിച്ചും മറ്റുള്ളവർക്കത് പറഞ്ഞുകൊടുക്കാനും നമുക്ക് ഭാഷ മലയാള ഭാഷ നമ്മളെ സഹായിച്ചിട്ടുണ്ട് നമുക്ക് വായിക്കാവുന്ന സിമ്പിളായിട്ടുള്ള രീതിയിലാണ് പത്രങ്ങളാണെങ്കിലും സാഹിത്യങ്ങളാണെങ്കിലും പുസ്തകങ്ങളാണെങ്കിലുമൊക്കെ എഴുതിയിട്ടുള്ളതും കഠിനമായ വാക്കുകൾ ഉള്ള സാഹിത്യ കൃതികളുണ്ട് അപ്പം നമുക്ക് കഠിനമായ നമ്മൾ വായിക്കുമ്പോഴത്തേക്കും നമുക്ക് അതനുസരിച്ച് ഭാഷയിലുള്ള തെളിവും പരിജ്ഞാനവും നമുക്ക് കൂടാനും അതുവഴി നമുക്ക് ശുദ്ധമായ ഭാഷ സംസാരിക്കാനും നമുക്ക് കൂടുതലായിട്ട് മലയാളം സംസാരിക്കാനും ഒക്കെ നമുക്ക് പ്രചോദനവും അറിവും എല്ലാം കിട്ടുന്നു നമ്മളുടെ ഭാഷയും സംസ്കാരവും നമ്മുടെ സംസ്കാരം മറ്റുള്ളവരെ സഹായിക്കുകയെന്നുള്ളതും മറ്റുള്ളവരുടെ വിഷമങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കഷ്ടപ്പാടുകളിലും അവർക്ക് പ്രചോദനവും താങ്ങും തണലുമായിരിക്കാനും അവരെ ആശ്വസിപ്പിക്കാനും ഒരു സഹായം കൊടുക്കണമെന്ന് മനസ്സിൽ തോന്നാൻ ഒക്കെ നമ്മുടെ ഈ ഭാഷയിലൂടെ നമ്മൾ പഠിച്ചെടുത്ത അറിവുകളും അപ്പം അതെല്ലാം നമുക്ക് പ്രയോജനമാകുകയും മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ പങ്കാളിയാകാനുള്ള ഒരു സഹാനുഭൂതിയുമൊക്കെ നമുക്ക് തോന്നുന്നത് നമ്മുടെ ഭാഷ പഠിച്ചതുകൊണ്ടും ഭാഷയുടെ സംസ്കാരങ്ങൾ പഠിച്ചതുകൊണ്ടും ഒക്കെയാണ് ആ മലയാള ഭാഷ പ്രാചീനമായൊരു ഭാഷയാണ് നമുക്ക് അതിലഭിമാനിക്കാൻ പറ്റും ആ ഭാഷയിലെ കൃതികൾ ലോകപ്രശസ്തമായ കൃതികളുണ്ട് ച്ച തകഴിയുടെ ചെമ്മീൻ പോലെയുള്ള വലിയ വലിയ പ്രഖ്യാതമായ കൃതികളും അത് സിനിമയാക്കിയപ്പോൾ ആ സിനിമയ്ക്കന്ന് അന്താരാഷ്ട്ര പ്രശസ്തി നേടാനും എല്ലാം നമ്മുടെ ഈ ഭാഷ കൊണ്ടാണ് നമുക്കും മറ്റുള്ളവർക്കും സാധിച്ചത് നമ്മുടെ ഭാഷയും സംസ്കാരവുമുള്ളതുകൊണ്ടാണ് നമ്മൾ എവിടെച്ചെന്നാലും അതിനൊരു വില കിട്ടാനും നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കാനും നമ്മളുടെ അറിവും ഭാഷാസംസ്കാരവും പഠിക്കാനും നമ്മുടെ വ്യക്തിയെ വ്യക്തികളാക്കിത്തീർക്കാനും സമൂഹത്തിൽ വിലയും നിലയുമുള്ള വ്യക്തികളാ യി തീരാനുമൊക്കെ നമുക്ക് നമ്മുടെ ഭാഷ സംസ്കാരവും അതിൻ്റെ ഭാഷ ഇതെല്ലാം പഠിക്കുന്നതുകൊണ്ടാണ് നമുക്കത്തിൽനിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ നമ്മുടെ വ്യക്തിത്വവളർച്ചയ്ക്കും എ പേഴ്സണാലിറ്റി ഡെവലപ്പ്മെൻറ്റിനും ഒക്കെ നമുക്ക് ഭാഷ വലിയൊരു ഘടകമായി മാറിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് മറ്റുള്ളവരെ സംസാരി നല്ല രീതിയിൽ സംസാരിക്കാനും നല്ല രീതിയിൽ പെരുമാറാനും ഒക്കെ പഠിക്കാൻ പറ്റും നമുക്കീ ഭാഷ കൊണ്ടും ഭാഷ അറിവുകൾ കൊണ്ടും ഒക്കെയാണ് നമുക്ക് മലയാള ഭാഷയും വ്യക്തിത്വത്തെ സ്വാധീനിക്കുകയും പിന്നെ നല്ലൊരു നല്ലൊരു വ്യക്തിയായി നല്ല നല്ലൊരു ഒരു ഹൃദയത്തിനുടമയായി നല്ലൊരു മനുഷ്യനായി ജീവിക്കാനും സഹാനുഭൂതിയോടെ ജീവിക്കാനുമൊക്കെ നമുക്ക് നമ്മുടെ ഈ ഭാഷ നമുക്കൊരു പ്രചോദനവും ഒരു ഒരാത്മാഭിമാനവും ഒക്കെ തരുന്ന ഭാഷേ നമ്മുടെ ഈ മലയാള ഭാഷ കൊണ്ട് എനിക്കുതന്നെ നേടാൻ കഴിഞ്ഞ അറിവുകളും വ്യക്തിത്വവും നമ്മളെ മനുഷ്യനായി മനുഷ്യനെ മനുഷ്യനായി കാണാനും സഹാനുഭൂതിയുമൊക്കെ കിട്ടിയത് നമ്മുടെ ഭാഷ കൊണ്ടുതന്നെയാണ്